എനിക്കൊരു മെഡിക്കൽ ആന്ഡ് സ്കാനിംഗ് സെൻ്ററിൻ്റെ ഒരു ബിസിനസ്സാണുള്ളത് എൻ്റെ കുടുബപരമായിട്ടുതന്നെ ഒരു പത്തിരുപത്തിയഞ്ചു വർഷംകൊണ്ട് ബിസിനസ് ചെയ്തുവരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഏകദേശം ഒരു അഞ്ചാറു വർഷം മുമ്പ് ഗണ്യമായ എൻ്റെ ബിസിനസ്സിനെ ബാധിച്ചൊരു ഇഷ്യു ഉണ്ടായിട്ടുണ്ട് അതായത് മെഡിക്കൽ ലാബ് അറിയാമല്ലോ മറ്റേ ഷുഗർ ഷുഗർ കൊളസ്ട്രോൾ അതു കൂടിയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ലാബാണ് അപ്പോള്ത്തന്നെ സംഭവിച്ചത് എന്താണെന്നു ചോദിച്ചാൽ ഞങ്ങൾ ടെസ്റ്റുകളുടെ റേറ്റ് കട ഒരു ചെറിയതല്ല ഒരു ഇച്ചിരി ഒന്നു കൂട്ടി അങ്ങനെ കൂട്ടിയപ്പോൾ പേഷ്യൻസൊക്കെ വ ചെറിയ തോതിൽ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു തുടങ്ങി ആദ്യം അതത്ര കാര്യമാക്കി എടുത്തില്ല അതു പിന്നീട് ശരിയായിക്കൊള്ളുമെന്നു വിചാരിച്ചു പക്ഷെ പിന്നെ പിന്നെ ഒരു ഒരു ഒരു നല്ല നല്ല രീതിയിൽ ബിസിനസ് കുറയാൻ തുടങ്ങി അതാണ് ഉണ്ടായ ആദ്യത്ത ഒരു അനുഭവം

ഇത് എങ്ങനെ തരണം ചെയ്തെന്നു ചോദിച്ചാൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടുതന്നെ ഞങ്ങള്ക്ക് ഒരു പെട്ടെന്നിപ്പോള് ഒരു ഒന്നുരണ്ടു വർഷം എടുത്തിട്ടാണേലും ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഇത് ഇത് ഞങ്ങള്ക്ക് മനസ്സിലായി അപ്പോള്ത്തന്നെ ഞങ്ങൾ മറ്റ് ലാബിലും സ്കാനിങ് സെൻ്ററിലും മേടിക്കുന്ന അത്രതന്നെ ഒരു റേറ്റിലേക്കു താഴ്ത്തി റേറ്റുകളൊക്കെ അങ്ങനെയാണു മറികടന്നത് മറ്റൊരു സംഭവമെന്താണെന്നു ചോദിച്ചാൽ സ്കാനിംഗ് സെൻ്റര് നടത്തുമ്പോള് അറിയാമല്ലോ അതിന് ഒരുപാട് പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഞാൻ പുതുതായിട്ട് കാഞ്ഞിരപ്പള്ളിയിലൊരു ബ്രാഞ്ചിടാന് നേരത്ത് ഞങ്ങള്ക്ക് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ പെർമിഷൻ എല്ലാം കിട്ടുമെന്നാന്ന് വിചാരിച്ചത് ബട്ട് ഞങ്ങള്ക്ക് ഒട്ടും തന്നെ അപ്രതീക്ഷിതമായി ഒരുത്തിരിയൊരു ആപ്ലിക്കേഷനൊക്കെ റിജക്റ്റാവുകയും പഞ്ചായത്തിന് പെർമിഷൻ കിട്ടാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി പെട്ടെന്നു വളരെ ഷോക്കിങ്ങാണെങ്കിലും കാരണമെന്നാണെന്നു വച്ചാൽ മതിയായ വിസ്തൃതിയില്ല എന്നാണ് പഞ്ചായത്തിൻ്റെ പ്രാഥമിക വിശദീകരണം പക്ഷെ പക്ഷേ അതുകൊണ്ടുതന്നെ എല്ലാം ഒന്നും കൂടെ വന്നു അങ്ങന അങ്ങനെയാണ് ഒരിതായത് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ബിസിനസ്സ് ഓടുന്നു എല്ലാം എല്ലാം ശുഭമായി അവസാനിച്ചു ശുഭദിനം